ലോക്ക്ഡൗൺ സമയത്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ജനങ്ങൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പും മൊബൈൽ ഫോണുകൾ വല്ലതും ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങിയത് കാരണം വിീട്ടിലിരുന്ന് തന്നെ നമുക്ക് എന്തും നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമുക്ക് എന്തു എന്ത് ഒരു കടകളിൽ നിന്നാണെങ്കിൽ തന്നെയും കുട്ടികളുടെ വിദ്യാഭ്യാസമാണെങ്കിൽ തന്നെയും ജോലി സംബന്ധമായിട്ട് തന്നെയാണെങ്കിലും ലാപ്ടോപ്പും മൊബൈൽ ഫോണും നമുക്ക് അന്ന് വളരെയധികം ഉപയോഗിക്കേണ്ടത് തന്നെയായിയിരുന്നു ഇപ്പം നമുക്ക് ഇന്ന് ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഇപ്പം സ്കൂള നമ്മുടെ ഔദ്യോഗിക സ്ഥലങ്ങളിലാണെങ്കിൽ തന്നെയും നമ്മുടെ വിദ്യ കുട്ടികളുടെ വിദ്യാഭ്യാസം പിന്നെ ഓഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ലാപ്ടോപ്പ് വഴി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ മൊബൈൽ ഫോണ് മൊബൈൽ ഫോണ് ഇന്ന് ഒന്ന് വളരെയധികം നമുക്ക് ആവശ്യകരം ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കാരണം നമുക്ക് ഒരു ഗൾഫിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വിദേശങ്ങളിൽ നടക്കുന്ന ഏതൊരു കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സയൻറ്റിഫിക്കലായിട്ട് നടക്കുന്ന ഏതൊരു കാര്യങ്ങളും നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം ആ അതുപോലെ തന്നെ ഫോണ് നമുക്ക് വളരെയധികം അത്യന്താപേക്ഷിതം തന്നെയാണ് ഇന്ന് നമ്മുടെ ഈ നാട്ടിലും വീട് നാട്ടിലും മറ്റും നടന്നു പോകുന്ന ഓരോരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുകയും എല്ലാം ചെയ്യുവാനും നമുക്ക് ഒന്ന് ടി വി ടിവിക്ക് പകരം അല്ലെങ്കിൽ ഒരു ഒരു ഒരു കാൽക്കുലേറ്ററിന് പകരം അല്ലെങ്കിൽ ഒരു റേഡിയോക്ക് പകരം നമുക്ക് എടുത്ത് മുന്നോട്ട് കാണിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ മൊബൈൽ ഫോണുകൾ അതേപോലെ തന്നെ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ഉണ്ടങ്കിൽ തന്നെ നമുക്ക് എല്ലാ നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള എല്ലാം റെക്കോർഡ് ചെയ്തു വയ്ക്കുവാനും ഏത് നമുക്ക് അടുത്ത തലമുറയ്ക്ക് നമുക്ക് ഹാൻഡ്ഓവർ ചെയ്യുവാനും അടുത്ത തലമുറ നിലനിറുത്തുവാൻ വേണ്ടിയും ഉള്ള ഒരു ഒരു ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ലാപ്ടോപ്പ് ലാപ്ടോപ്പിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ ഓഫീസിലെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുകയും നമ്മുടെ ജോലിക്ക് സംബന്ധമായ നമ്മുടെ ബിസിനസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യുകയും അതിൽ അതിൽ നിന്നും നമുക്ക് അപ്ലോഡ് ചെയ്തു നമ്മുടെ ഓഫീസുകളിൽ എത്തിക്കുകയോ മറ്റും ചെയ്യാവുന്നതാണ് കുട്ടികളുടെ പഠനത്തിന് നമുക്ക് ഒന്ന് ഒന്നാം ക്ലാസ് തൊട്ടുള്ള അല്ലെങ്കിൽ എൽ കെ ജി യു കെ ജി തൊട്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് സ്കൂളിൽ ഇരുന്ന് കുട്ടികളെ പഠിക്കുവാനും അല്ലെങ്കിൽ ഹൈസ്കൂളിലാണെങ്കിൽ തന്നെ ആണെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും മുൻതൂക്കം കൊടുത്ത് കൊണ്ടിരുന്ന ഒന്ന് തന്നെയായിരുന്നു ലാപ്ടോപ്പ് ഇതിൻ്റെ ആവശ്യകത നമുക്ക് ഏത് രീതിയിലും നമുക്ക് നല്ലത് തന്നെയാണ് അവനെ സ്മാർട്ട് ഫോണുകളും ഫോണുക ൾ നമുക്ക് ലോക്ഡൗണിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് വീട്ടില വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ഭക്ഷണം നമുക്ക് ആഹാരം എത്തിക്കുന്നതിനും നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ടും നമുക്കെന്ത് ആവശ്യങ്ങളാണെങ്കിൽ തന്നെയും നമുക്ക് മുൻകൂട്ടി അവരെ അറിയിക്കുവാനും മറ്റു കാര്യങ്ങളിലെ നമുക്ക് മുന്നോട്ട് നമുക്ക് ഉള്ള യാത്രകളും എല്ലാം നമുക്ക് ഈ സ്മാർട്ട് ഫോണുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിലുള്ള ഉള്ള ഗൂഗിൾ വഴിയാണെങ്കിൽ തന്നെയും ഗൂഗിൾ മാപ്പ് വഴിയാണെങ്കിൽ നമുക്ക് വഴി അറിയുവാനും മറ്റ് ഏറ്റവും വളരെയധികം നല്ല തന്നെയാണ് ഇപ്പം നമുക്ക് അതുപോലെ തന്നെ ഫോണ് നമുക്ക് വിദേശങ്ങളിലിരിക്കുന്ന നമ്മളെ മക്കളെയും നമ്മളെ കുടുംബാങ്ങളെയും നേരിട്ട് കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്യാവുന്ന അവ ഒരു നൂതനമാർഗം തന്നെയാണ് മൊബൈൽ ഫോണുകളെ അത് മൊബൈൽ ഫോണുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന വിവരങ്ങളും അറിവുകളും നമ്മുടെ തലമുറയ്ക്ക് കൈമാറുവാനായിട്ട് നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും അതേപോലെ തന്നെ ലാപ്ടോപ്പ് നമുക്ക് ഇന്ന് ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഒരു ഒരു വീട്ടിലെ ഒരു ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ ഒരു സ്കൂളിലെ ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ ഗുണമാണ് നമുക്ക് ചെയ്യുന്നത് നമുക്ക് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് നമുക്ക് വീട്ടിലിരുന്ന് മനസ്സിലാക്കുവാനും അത് എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് അതിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടും സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഫോണുകൾ നമുക്ക് അറിയാം നമുക്ക് നമ്മുടെ ആൾക്കാർ എവിടെ എന്ത് എവിടെ എത്തുന്നു അതേപോലെ തന്നെ നമുക്ക് ഒരു റെയിൽവേ സ്റ്റേഷനാണെങ്കിലും ബസ് സ്റ്റോപ്പുകളാണെങ്കിലും ബസ് ബസ്സിൻ്റെ സമയങ്ങൾ അറിയുവാനായിട്ട് നമുക്ക് വിളിക്കുവാനും എടുക്കുവാനും എല്ലാവിധ ഇത് അറിവുകളും നമുക്ക് മൊബൈൽ ഫോൺ വഴി നമുക്ക് കിട്ടപ്പെടുന്നതാണ്